നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ ഒരു വികസിത വികസ്വര രാജ്യമായതുകൊണ്ടു തന്നെ അതുപോലെതന്നെ ഇവിടെ ആവശ്യത്തിലധികം ജനസംഖ്യ ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് പാരിസ്ഥിതിക പ്രശ്നങ്ങളും അതുകൊണ്ട് സംഭവിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് പ്രത്യേകിച്ചും ഇന്ത്യയിൽ ഒരുപാട് വനനശീകരണങ്ങൾ നടക്കുന്നുണ്ട് അതുപോലെതന്നെ ശബ്ദമലിനീകരണങ്ങൾ നടക്കുന്നുണ്ട് അതുപോലെതന്നെ പാരി പരിസരത്തിൽ ഒരുപാട് മറ്റ് രീതിയിലുള്ള മലിനീകരണങ്ങളും നടക്കുന്നുണ്ട് ഇതൊക്കെ പരിസ്ഥിതിയെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളായിട്ട് ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പം ഈ അതുപോലെ തന്നെ പിന്നെ ഈ ഒരു പ്രശ്നങ്ങൾ കാരണം നമ്മുടെ ചുറ്റുപാടിൽ സംഭവിക്കുന്നത് എന്താന്നു വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ കാലാവസ്ഥ തീർച്ചയായും മാറുന്നുണ്ട് പണ്ട് വർഷങ്ങൾക്കു മുമ്പ് നമ്മളൊക്കെ ചെറുതായിരുന്ന കാലത്തുണ്ടായിരുന്ന ഒരു കാലാവസ്ഥ അല്ല ഇന്ന് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നത് പ്രത്യേകിച്ചും ഒരു കാലത്തിന് ഒന്നും ഒരു പ്രത്യേക സമയമോ അല്ലെങ്കിൽ ഓരോ മഴ ഓരോ സീസൺ മഴ മഴക്കാലം വേനൽക്കാലം ഇതിനൊന്നും ഒരു പ്രത്യേക സീസണോ സമയമോ ഇല്ലാത്ത രീതിയിലാണ് ഇപ്പം മാറിക്കൊണ്ടിരിക്കുന്നത് കണ്ടിന്യൂസും മഴ അല്ലെങ്കിൽ മഴയുടെ മഴയുടെ ഇടയിൽ തന്നെ വെയിൽ വരുമ്പം അതിൽ അതിൽ ഭയങ്കരമായ ചൂട് അങ്ങനെയൊക്കെയുള്ള ഓരോ പ്രശ്നങ്ങൾ നമ്മുടെ ഇവിടെ ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ടുതന്നെ തീർച്ചയായിട്ടും ഇവിടെ പരിസ്ഥിതി മാറി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്